ഹലോ ആ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് താമസിക്കാൻ വന്ന വ്യക്തിയാണ് പിന്നെ ഇവിടെ വീട് വീട് വച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വാട്ടർ കണസൻ്റ് കണക്ഷൻ എനിക്ക് ആ അത്യാവശ്യമായിട്ടു വേണം അപ്പോൾ വീടുപണി ചെയ്യുമ്പോഴും ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വാട്ടർ കണഷൻ തന്നു നങ്ങളെ സഹായിക്കണം അതിനു വേണ്ടിയിട്ടും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഈ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് അതൂ കൊണ്ട് വരാൻ വേണ്ടി ഒന്ന് അറിയിക്കണം വാട്ടർ കണക്ഷനിൽ കൂടി ഈ ആ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കുവാൻ ഞാൻ പുറത്തു നിന്ന് ആരെയെങ്കിലും വിളിക്കണോ അതോ നിങ്ങൾ ആരെങ്കിലും കടന്നു വന്നു ചെയ്യുമോ അതിൻ്റെ ഫീസ് എത്രയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു